പ്രധാന മന്ത്രീൻ്റെ പോഷണ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് പോഷണ പദ്ധതി നല്ല ഒരു പദ്ധതിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് പിന്നെ പോഷക ആഹാര കുറവുള്ള എല്ലാ കുട്ടികൾക്കും ആ പോഷണങ്ങൾ ഒക്കെ കൊടുക്കും അതായത് അവരുടെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അതായത് അവരുടെ പ്രായവും വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് നല്ല പോഷണം ഉള്ള അതായത് മുത്താര പൊടി അമൃതം അമൃതം പൊടി അങ്ങനത്തെ ഒക്കെ കൊടുക്കും പിന്നെ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ ആറ് മാസം ആയിട്ടുള്ള കുട്ടിക്ക് പിന്നെ അമൃതം പൊടി അങ്ങനെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഒന്നര വയസ്സ് വരെ ഒക്കെ കൊടുക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികൾക്ക് പിന്നെ ഗോതമ്പ് പിന്നെ അതുപോലെ അവിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും അതൊക്കെ നല്ല ഒരു പദ്ധതി ആണ് പ്രധാനമന്ത്രീൻ്റെ പോഷണ പദ്ധതി